ഇന്ത്യൻ സിനിമകളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും പറയാനാണെങ്കില് അതായത് എല്ലാം നല്ലതാണ് നമുക്ക് അതായത് നമുക്കൊരു എൻറ്റർട്ടെയിനിങ് പരിപാടികളാണ് ഈ സിനിമയും സീ അതായത് നമുക്ക് എൻറ്റർട്ടെയിനിങ്ങുള്ള കാര്യങ്ങളാണ് നമുക്ക് സംഗീതവും സിനിമയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഏതൊക്കെ തരം സിനിമകളും സീരിയലുകളും ആണ് ഇഷ്ട്ടം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മലയാളത്തില് നല്ല അതായത് കുറച്ചൊരു മീഡിയം ലെവലൊരു രണ്ടായിരം രണ്ടായിരത്തി ആ ഒരു ടൈമിലുള്ള സിനിമകളൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടം ഇപ്പത്തെ സിനിമയിലൊന്നും വലിയ കഥയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ലപ്പോഴും എപ്പത്തെ എപ്പോഴെങ്കിലും ഇറങ്ങുന്ന നല്ലൊരു സിനിമയായിരിക്കും പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അടുപ്പിച്ച് എല്ലാം നല്ല നല്ല സിനിമകളാണ് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കില് സീരിയല് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ സാന്ത്വനം സീരിയല് കാണും സാന്ത്വനം എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ് സാന്ത്വനം സീരിയലെ കാണാറുള്ളൂ പിന്നെ മൗനരാഗവും കാണും പിന്നെ സിനിമേനേക്കാളും ഞാൻ കൂടുതൽ കാണാറ് സീരിയലുകളാണ് ഇപ്പം കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലൊ സാന്ത്വനം കുടുംബവിളക്ക് മൗനരാഗം കുടുംബവിളക്ക് കഴിഞ്ഞു പിന്നെ മൗനരാഗം അങ്ങനെയുള്ള ഒരുപാട് സിനിമ സീരിയല് സീരിയലാണ് ഞാൻ കൂടുതല് കാണാറ് പിന്നെ സിനിമാ ഗാന ഗാനങ്ങൾ എന്നു പറഞ്ഞാൽ എനിക്ക് മെലഡി ഗാനങ്ങളൊക്കെയാണ് കൂടുതലിഷ്ട്ടം പ്രിയപ്പെട്ട ഗായകൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യേശുദാസാണ്